ഇന്ത്യയിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പല രീതിയിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മള് ഇന്ത്യയിലുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ നമുക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഇന്ത്യയിലുണ്ടാക്കുന്ന ഒരു ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ബിരിയാണിയാണ് മെയ്നായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ബിരിയാണി മസാല അങ്ങനെ പല രീതിയിലുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണ് ഇപ്പോൾ പലതിലും ചിലപ്പോൾ മായവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ബിരിയാണി മസാല കൂടുതലായിട്ടും നമ്മള് ഇന്ത്യക്കാര് യൂസ് ചെയ്യുന്ന ഒന്നാണ് കാരണം എന്താണെന്ന് വച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോൾ പല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ബിരിയാണി മസാല മാത്രല്ല സാമ്പാർ പൊടി പിന്നെ ചിക്കൻ മസാല മീറ്റ് മസാല അങ്ങനത്തെ കുറേ മസാലകളും കാര്യങ്ങളൊക്കെ നമ്മള് ഇന്ത്യയിലിറക്കുന്നുണ്ട് ഇപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി അങ്ങനത്തെ പൊടികളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പല രീതിയിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിലൊക്കെയുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ സാമ്പാറും ചോറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്